ഓ ഞാൻ പോയിട്ടുള്ളതിൽ നല്ല രീതിയിൽ ഉള്ള അതായത് ഓഫ് റോഡും കാര്യങ്ങളും ഉണ്ടായിരുന്നൂന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാ ഇവിടെ ഉള്ള മാരിയമ്മൻ കോവിലിൽ ഉൾ മുകളിലേക്ക് കയറുന്ന ഒരു വഴിയാണ് അവിടെ എന്ന് പറയുമ്പോൾ ഫുള്ള് കല്ലുകളാണ് അതായത് ഫുള്ള് കല്ലുകൾ നമ്മൾ അതിലെ നടന്ന് പോകുമ്പോഴൊക്കെ ഭയങ്കര റിസ്കാണ് എങ്ങനെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു വടിയൊക്കെ കുത്തി പിടിച്ച് നടക്കേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത് പക്ഷേ നല്ല രീതിയിൽ ഉള്ള കല്ല് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമ്മളാ യാത്ര നല്ല എൻജോയ് ചെയ്തിട്ട് ആണ് യാത്ര ചെയ്തത് അപ്പം നല്ല രീതിയിൽ ഉള്ള കല്ല് വലിയ വലിയ കല്ലുകളാണ് അപ്പം ഈ ബൈക്കിൽ ഒക്കെ വരുമ്പം ഭയങ്കര ബുദ്ധിമുട്ട് ആണ് അപ്പോൾ നമ്മൾ നടന്നാണ് കയറിയത് ചിലർ ബൈക്കിൽ കയറുന്നുണ്ട് അവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈക്കിൽ കയറുന്ന സമയത്ത് വീഴും കാര്യങ്ങൾ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് അങ്ങനത്തെ ഒരു ഭയം ഉള്ളത് കൊണ്ട് അതായത് ഒരു ബൈക്കിൽ പോകാൻ ഒക്കെ ഒരു ഭയം ഉള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്ത് നടന്നാണ് കയറിയത് വലിയ വലിയ കല്ലുകളാണ് അപ്പോൾ നല്ല രസമാണ് നമ്മൾ കുറെ ആൾക്കാർ ഉള്ളപ്പോൾ വാർത്ത വാർത്താനമോക്കെ പറഞ്ഞ് കയറാൻ ഒക്കെ ഒരു രസമാണ് പിന്നെ നല്ല എന്താ പറയാ അതിൻ്റെ കുന്നിൻ്റെ മേലെ കയറി കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ ആണ് നമുക്ക് ആ ഒരു പ്രദേശം മൊത്തം നമുക്ക് അതിൻ്റെ മേലെ ഇരുന്ന് കാണാൻ പറ്റും ഇതാണ് എനിക്ക് ഉണ്ടായ ക്ലൈമിംഗ്